ഹലോ ആ ചേട്ടാ പറയൂ ആ പുതിയ ആ പഴയ മോഡല് വീടൊരെണ്ണം പുതിയത് പണിയണമെന്നല്ലെ ആ ആ ആ ആഷിഖെന്ന് അല്ലെ പേര് ആ ഓക്കെ ഓക്കെ ശരി വരു വരു വരു വരു നമ്മള് എത്ര സ്ക്വയർ ഫീറ്റാണ് ഉദ്ദേശിക്കുന്നത് ആ ആ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇല്ലെ ഓക്കെ അത് ആ ആ ആ ആ അതിപ്പോൾ എങ്ങനെയാണ് റൂമ് രണ്ട് നില വേണോ അതോ ഒര് നില ആയിട്ടാ എന്താ ഉദ്ദേശിക്കുന്നത് അതില് ആ ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സി ഓ ഒ ഓ ഓക്കെ ഓക്കെ ഓക്കേ ഇപ്പോൾ നമ്മള് എത്ര റൂമാണ് ഉദ്ദേശിക്കണത് ആ ആ അല്ല അന്ന് ആ അതെ ഞാൻ അതാ ഞാൻ ഉദ്ദേശിച്ചത് അത് അന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ ആ അത് ആ ഓക്കെ ഇപ്പം നമ്മള് അന്ന് പറഞ്ഞതിലേക്ക് ഒരു ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം കേറി വരണ ഒരു സിറ്റ് ഔട്ട് പോലെ അത് കഴിഞ്ഞാൽ ഹോള് പിന്നെ ആ ഹോളിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ ഈ നടുമുറ്റം പോലെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ചുറ്റിലും ആയിട്ടാണ് നമ്മള് റൂമ് ഇതാക്കി ഇരിക്കണ് രണ്ട് സൈഡ് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ആ അത് കഴിഞ്ഞ വഴിക്ക് ഒരൂ ലിവിംഗ് ഏ മറ്റെ സിറ്റ് സിറ്റ് ഔട്ട് രണ്ട് റൂമ് കഴിഞ്ഞ വഴിക്ക് ഒരു കോമൺ ബാത്ത്റൂം വരുന്നുണ്ട് അത് കഴിഞ്ഞ് കിച്ചണും അതിൻ്റെ ഇപ്പറത്തായിട്ട് നമ്മുടെ വർക്കേരിയയും ആ ഒരു സ്ക്വയർ മോഡലില് പിന്നെ നമുക്ക് ഇതിന് വേണമെങ്കിൽ മേലേക്ക് പണിയാന്ന് ഉള്ള രീതിയിലാണ് അതൊന്നും പറയാത്തോണ്ട് നമ്മള് പിന്നെ എടുത്തിട്ടില്ല ഏകദേശം അത് വരുന്നത് രണ്ട് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ആ എപ്പ് അപ്പോൾ അതില് ഇപ്പോൾ നമുക്ക് വന്നിട്ട് ഡിസ് നമ്മടെ ഇൻറ്റീരിയറ് മൊത്തം ഏകദേശം പഴയ മോഡലിലേക്കാണ് പോയിരിക്കുന്നത് പഴയ തറവാട് സ്റ്റയ്ലില്ലെ ഇപ്പം നടുത്തളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ സെറ്റപ്പിലേക്ക് പോയിട്ട് ഉണ്ട് അതില് നമ്മുടെ വാഷ്റൂമ് അങ്ങനത്തെ സാധനങ്ങളുടെ എല്ലാ ഐറ്റംസും നമ്മള് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള തന്നെ ചെയ്യാം ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളുമൊക്കെ പുറത്ത് അത്യാവശ്യം ലൈറ്റ് എൽ ഇ ഡി ലൈറ്റോ അങ്ങനെ എന്തേലും വേണമെങ്കിൽ അങ്ങൻത്തെ ഈ ഇതൊക്കെ ചെയ്യാൻ പറ്റും വാ അപ്പോൾ ഇതില് നമുക്ക് പുറത്ത് വ വരാന്തയിലൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റിട്ടാൽ കാണാൻ നല്ല ഭംഗി ആയിരിക്കും നിങ്ങളുടെ സ്ഥലം എത്ര സ്ക്വയർ ഏരിയ ഉണ്ട് വരുന്നത് ഒര് ഏക്കറുണ്ടോ എങ്ങനെ സ്ഥലം വരുന്നത് എത്ര സെൻറാണ്

ഓക്കെ ഓ

ഓക്കെ ഓക്കെ ഇത് നമ്മള് ആ ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ഇരുപതായിട്ട് മുപ്പതിൻ്റെ ഉള്ളിലാണ് ഇത് വരെ ചെയ്തിട്ട്ള്ളത് പുതിയ അതായത് ഏകദേശം ആ അത് കുറച്ചും കൂടെ മോഡേണായിരിക്കും ഇപ്പം നിങ്ങള് പാ കുറച്ച് അത്ര മോഡേണാവണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അത്ര വരില്ല ഏകദേശം ഒരു എന്തായാലും ഒരു നമുക്ക് ഒര് ഇരുപതിൻ്റെ മുകളിലേക്ക് പ്രതീക്ഷിക്കാം ഇരുപതല്ലേൽ ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് തീർക്കാം ആ ആ നമുക്ക് അതിൻ്റെ ഉള്ള് എന്തായാലും മാക്സിമം തീർക്കാൻ നോക്കാം പിന്നെ വരയ്ക്ക് അതായത് നിങ്ങളുടെ ഫണ്ട് വരണ അനുസരിച്ച് നമ്മടെ വർക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ അതിന് ഇടയ്ക്ക് ബാക്കി പിന്നെ കോമണായിട്ടുള്ള സിമൻറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ അത് ഇപ്പം ചില സമയത്ത് ഡെയ്ലി വില കൂടും ചില സമയത്ത് കുറയും അപ്പോൾ നമ്മളത് മാക്സിമം ഒന്നോ രണ്ടോ അങ്ങോട്ട് കൂടാം അല്ലെങ്കിൽ കുറയാം ഓക്കെ അതെ അതെ അതെ അതെ അപ്പോൾ നമ്മക്ക് എപ്പഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞാലെ നമുക്ക് ഇതിൻ്റെ പ്ലാൻ ഒന്ന് ഫൈനലൈസ് ചെയ്യാന് എങ്ങനെയാണ് എപ്പഴാണ് വരണ്ടത്

ആ ഓക്കെ അപ്പം ഞാന് വ്യാഴാഴ്ച്ച വൈകുന്നേരം വിളിക്കാം ഏ പ്ലാൻ ഫൈനലൈസ് ചെയ്തിട്ട് നമ്മളൊക്കെ മനസ്സിലേകദേശം ഇത് റെഡി ആയിട്ട് ഉണ്ട് ഇപ്പം നിങ്ങള് പറയണപ്പോലെ ബാക്കി നിങ്ങള് വേറെ ആരെയെങ്കിലും പ്ലാന് കാണണമെന്നോ അങ്ങനെ എന്തേലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആ ഓക്കെ അപ്പം നിങ്ങള് വന്നാൽ മതി വെള്ളിയാഴ്ച രാവിലെ ആയിട്ട് വന്നാൽ മതി ഓക്കെ ശരി ശരി ഓക്കെ